ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിന് അവൻ്റെ മാതൃഭാഷയ്ക്ക് ഒരു വലിയ പങ്കാണുള്ളത് കാരണം അതുപോലെ തന്നെയാണ് എനിക്കും കാരണം എൻ്റെ മ മാതൃഭാഷയായ മലയാളം എൻ്റെ വ്യക്തിത്വ വികസനത്തിന് വലിയ പങ്കു തന്നെയാണ് വഹിച്ചിട്ടുള്ളത് എനിക്ക് ചെറുപ്പം മുതലേ വായിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മലയാളത്തിൻ്റെ നമ്മുടെ മാതൃ ഭാഷയുടെ സംസ്കാരത്തെയും നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംസ്കാരങ്ങളെയും പൈതൃകങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഈ മലയാളഭാഷയിലൂടെതന്നെയാണ് അതായത് നമുക്ക് കുറേയേറെ സാഹിത്യ രചനകളുണ്ട് നമ്മുടെ മലയാളം ഭാഷയിൽ നിന്ന് അതായത് പണ്ടുമുതൽക്കേ എഴുതപ്പെട്ടിട്ടുള്ളതും നാം കുറിച്ച് വെച്ചിട്ടുള്ളതുമായ നിരവധി സാഹിത്യ കൃതികൾ മലയാളത്തിൽ നമുക്ക് ഉണ്ട് മലയാളത്തിൽ എഴുത്ത് നല്ല എഴുത്തുകാരന്മാരും നമുക്കുണ്ട് അതിലൂടെ സാഹിത്യ കൃതികളിലൂടെ തന്നെയാണ് ഞാൻ ഭാഷയെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുംനമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് പല കൃതികളിലും ആയി അതുപോലെ തന്നെ വ്യക്തിത്വം എൻ്റെ വ്യക്തിത്വ വികാസനത്തിന് ഭാഷയുടെ പങ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരാളോട് സംസാരിക്കുന്ന രീതി നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇടപഴകണം നമ്മൾ എങ്ങനെ സംസാരിക്കണംനമ്മളെങ്ങനെ ഒരാളുടെ ഒരാളെ നോവിക്കാതെ എങ്ങനെ നമ്മൾ അവരോട് ആശയവിനിമയം നടത്തണം അവരുടെ സംസ്കാരത്തെ നമ്മളെങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ടും അറിയാനും അത് നമ്മളെ സോന്ന് നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്